ഹലോ ഹലോ അതെ പറഞൊളൂ സാര് ആ ഓക്കെ എത്ര മെംബേഴ്സ് ആണ് സാര് ഉള്ളത് ഓക്കെ കുട്ടികളുണ്ടോ ഓക്കെ സാർ ആറു പേര്ക്കുള്ളതും ഇവിടെനിന്ന് തന്നെയാണോ എടുക്കുന്നത് ഓ ഓഫറും കാര്യങ്ങളും ഉണ്ട് സാര് നമുക്കിപ്പോൾ ത്രീ തൗസന്റിന് പർചൈസ് ചെയ്യുവാണെങ്കിൽ ട്വന്റി പെര്സന്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് സ്ക്രാച്ച് ആന്ഡ് വിൻ കാര്ഡുകളും കൂപ്പൺസൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് ഓൾമോസ്റ്റ് നമുക്ക് അത്യാവശ്യം ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട്

ഓക്കെ നമുക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിലും കാര്യങ്ങളിലും ചെയ്തുതരാന് പറ്റും പിന്നെ നമുക്ക് എന്താണ് പറയുക ഇത്ര ടെന് തൗസന്റിൻ്റെ മുകളിലേക്ക് പർചൈസ് ചെയ്യുന്നവര്ക്ക് ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓള്മോസ്റ്റ് അത്യാവശ്യം നല്ല ഓഫേർസും കാര്യങ്ങളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാര് വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാന് പറ്റും ഇപ്പോൾ ഓള്മോസ്റ്റ് എല്ലാ ഡ്രസ്സുകളും നമുക്ക് ഇവിടെ അവൈലബിള് ആണ് ആ നമുക്ക് ഒന്പതര വരെയാണ് ഷോപ്പ് ഉള്ളത് നൈറ്റ്

എല്ലാവരുടെയും ഉണ്ട് സാര് എല്ലാ ടൈപ്പും എന്താണ് പറയുക ഡ്രസ്സുകളും നമുക്ക് ഇപ്പോൾ ഇവിടെ അവൈലബിള് ആണ്

ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ട്രഡീഷണല് ടൈപ്പ് നോക്കുന്നത് ആയിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് സാര് ഓണത്തിനോക്കെ ഇപ്പം നമ്മൾ അത്യാവശ്യം ട്രഡീഷണല് ആയിട്ടുള്ള ഡ്രസ്സുകളല്ലേ യൂസ് ചെയ്യുക ഓക്കെ ഓക്കെ ഓക്കെ സാര് നമുക്കിപ്പോൾ ഓള്മോസ്റ്റ് എല്ലാ ഡ്രസ്സും പ്രൊ ഇവിടെ അവൈലബിൾ ആണ് സാര് നോക്കിയിട്ട് നമ്മളോട് പറഞ്ഞാൽ മതി ഓക്കെ നാളെ സാര് വന്നാൽ മതി വരുന്നതിന് മുന്പ് എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഞാന് ബാക്കി ഡീറ്റയില്സ് ഒക്കെ ഇവിടെ വന്നിട്ട് സാറിനു കറക്റ്റ് കാണിച്ചുതരാം സാറിന് ഇന്റ്ററസ്റ്റ് ഉണ്ടെങ്കില് മാത്രം നമുക്ക് ചെയ്താൽ മതിയല്ലോ ഓക്കെ സാര് നാളെ രാവിലെ വന്നാൽ മതി ഓക്കെ ഓക്കെ സാര്